മലയാളികൾ എന്തിനും ഏതിനും മറ്റുള്ള സംസ്ഥാനങ്ങളെയായിരുന്നു ഭക്ഷ്യവിഭവവങ്ങൾക്കായി ആശ്രയിച്ചുകൊണ്ടിരുന്നത് എന്നാൽ കോവിഡിൻ്റെ സമയം വന്നതോടുകൂടി നമ്മൾക്ക് പച്ചക്കറികളൊന്നും ലഭ്യമല്ലാതെവന്നു അങ്ങനെ എല്ലാവരും വീട്ടിലിരുന്ന സാഹചര്യത്തിൽ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അവർ പച്ചക്കറികളൊക്ക നടാൻ തുടങ്ങി അപ്പോൾ നമുക്ക് മായമില്ലാത്ത ഭക്ഷ്യ ഭക്ഷണസാധനങ്ങൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ മലയാളികൾക്ക് കൂടുതലായിട്ട് കണ്ടുകൊണ്ടിണ്ടിരിക്കുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ നമ്മുടെ ഭക്ഷണക്രമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ് അതുകൊണ്ടുതന്നെയാണ് കൂടുതലായിട്ടും മലയാളികൾ വിഷമില്ലാത്ത പച്ചക്കറികളും പഴങ്ങളും ഒക്കെ സ്വന്തം കൃഷിയിടങ്ങളിൽതന്നെ വളർത്തിയെടുക്കാനായിട്ടുള്ള ഇത് കാണിക്കാൻ തുടങ്ങിയത് അതുപോലെതന്നെ തമിഴ്നാട്ടിൽ നിന്നും ആണ് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ കേരളത്തിൽ എത്തിക്കൊണ്ടിരുന്നത് അത് അതിൽത്തന്നെ വളരെയധികം അമിതമായി മായം ചേർത്തിട്ടുള്ളതും അതുപോലെ പാകമാകാൻ വേണ്ടിയിട്ട് വളരെയധികം കീടനാശിനികളും വിഷങ്ങളും ഒക്കെ അടിച്ചാണ് അവർ പച്ചക്കറികൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ആ ഒരു പച്ചക്കറികൾ കേരളത്തിലോട്ട് എത്തുന്നത് എത്തുകവഴി നമുക്ക് ഒരുപാട് അസുഖങ്ങളും കാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങളും നമ്മുടെ ആരോഗ്യത്തെ കാർന്നുതിന്നാൻ തുടങ്ങിയത് മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ടാണ് അവിടെ നിന്നുള്ള പുറമേനിന്നുള്ള പച്ചക്കറികളൊക്കെ ബഹിഷ്ക്കരിച്ചുകൊണ്ട് നമ്മുടെതന്നെ പറമ്പിലും നമ്മുടെ ടെറസ്സുകളിലും നമ്മുടെ പരിസരങ്ങളിലും ഒക്കെ പച്ചക്കറിത്തോട്ടം ഉല്പാദിപ്പിക്കാൻവേണ്ടി ആളുകൾ കൂടുതലായിട്ടും മുന്നിട്ടിറങ്ങിയത് സോഷ്യൽ മീഡിയയുടെ സ്വാധീനം അതിന് വളരെയധികം സഹായകമായി നമുക്ക് ഈ വക മായങ്ങളൊക്കെ അടിക്കുന്ന പച്ചക്കറികളാണ് പുറമെ നിന്ന് വരുന്നതെന്ന് അറിയാൻ സാധിച്ചത് പല പല ന്യൂസുകൾക്കൂടി ന്യൂസുകളിൽക്കൂടിയായിരുന്നു അപ്പോൾ ഇതുവഴി നമുക്ക് മായമില്ലാത്ത പച്ചക്കറികൾ ഉൽപാദിപ്പിക്കാനും അതുവഴി നമ്മുടെ ആരോഗ്യത്തെ ഭദ്രമാക്കാനും അടുക്കളത്തോട്ടങ്ങൾ വളർത്തുന്നവരെേയും സഹായിക്കും പൂച്ചെടികളാണെങ്കിലും നമുക്ക് കൂടുതലായിട്ടും കണ്ണിന് കുളിർമ നൽകുന്നതും അതുപോലെ നമ്മുടെ മെൻ്റൽ പ്രഷറ് സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനായിട്ട് ഈ ഇങ്ങനെയുള്ള വിനോദങ്ങളിലും പൂച്ചെടികൾ നടുന്ന വഴിയൊക്കെ നമുക്ക് സഹായകമാവുന്നുണ്ട്